സന്ദർശകർക്ക് അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വളരെ അധികം സമാധാനത്തോടെയും അല്ലെങ്കിൽ സന്തോഷത്തോടെയും അവർക്ക് ചിലവഴിക്കാൻ കഴിയുന്ന കുറേ കുറേ വിനോദസഞ്ചാര സ്ഥലങ്ങൾ ഉണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് അതിൽ ഒരൂ സ്ഥലമാണ് വണ്ടർലാ എറണാകുളത്തുള്ള അത് വാട്ടർ തീം പാർക്ക് ആണ് അവിടെ കുറേ കുറേ റൈഡുകൾ ഉണ്ട് അവർക്ക് വിനോദ സഞ്ചാരകർക്കും അല്ലെങ്കിൽ അത് സന്ദർശിക്കാൻ വരുന്നവർക്കും യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ കുറേ റൈഡുകൾ ഉണ്ട് അതിൽ നിന്ന് അതിൽ കയറി അവർക്ക് അവരുടെ സമയങ്ങൾ അതായത് അവരുടെ ഇടവേള സമയങ്ങൾ അവർക്ക് വെക്കേഷൻ കിട്ടിയിട്ട് വരുന്ന ആ സമയങ്ങൾ ഭയങ്കര ആനന്ദകരമാക്കാനായിട്ടുള്ള കുറെ കുറെ റൈഡുകൾ ഉണ്ട് അങ്ങനെ ഒരു സ്ഥലമാണ് വണ്ടർലാ പിന്നെയുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാം അതായത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ അങ്ങനെയുള്ള സന്ദർശകർക്ക് വളരെ അധികം സമാധാനപരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ പ്രകൃതിയെ സ്നേഹിക്കുന്ന പ്രുകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നു ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇടുക്കി ഡാം അങ്ങനെ ഉള്ള ഒരു വളരെ അധികം വർഷങ്ങൾക്കു മുമ്പ് പണിത ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നപ്പോൾ പണിത ആ ഡാം പ്രകൃതിയുമായിട്ട് വളരെ അധികം ചേർന്നു നിൽക്കുന്ന സഞ്ചാരികൾക്ക് വളരെ അധികം യൂസ്ഫുൾ ആണ് പിന്നെ പിന്നെ ഉള്ളതാണ് തൊടുപുഴ തൊടുപുഴ ടൗണിൽ വരുന്നവർക്ക് കുറച്ചു നേരം അവരുടെ സമയം ആനന്ദകരമാക്കാനും അവരുടെ സമാധാനപരമായിട്ടുള്ള സമയം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ചിലവഴിക്കാനും വേണ്ടിയുള്ള ഒരു പാർക്ക് ഉണ്ട് ഒരൂ ചെറിയ ഒരു പാർക്ക് അത് വളരെ അധികം നല്ലതാണ് നദിയോട് ചേർന്നു നിൽകുന്ന ഒരു വലിയ നദിയോട് ചേർന്നു നിൽക്കുന്ന പാർക്ക് ആയതിനാൽ അവിടെ വന്നു വളരെ അധികം സഞ്ചാരികൾ വന്നു നിന്ന് അവിടെ അത് ആ പ്രകൃതി ഭംഗി ആസ്വദിക്കാറുണ്ട് പിന്നെ കുറേ കുറേ കുട്ടികൾക്കായിട്ടുള്ള കുറേ കുറേ റൈഡുകൾ കുട്ടികളെ എൻ്റെർട്ടൈൻ ചെയ്യിക്കുന്ന കുറേ കുറേ എക്യുപ്മെൻസ് അവിടെ ഉണ്ട് പിന്നെ ഒരു ചെറിയ ഒരു അതിൻ്റെ നടുക്ക് തന്നെ ഒരു കുളം വച്ചിട്ട് കുറേ മീനുകൾ ആ മീനിനെ ആസ്വദിക്കുന്നവർക്ക് മീൻ അവർക്ക് അങ്ങനെ സമയം പോകുന്ന അങ്ങനെ കുറേ കുറേ പാർക്കുകൾ അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട്